മാതൃഭാഷ അല്ലാതെ വേറൊരു പുസ്തകം ഞാനിതുവരെ വായിച്ചിട്ടില്ല വിവർത്തനം ചെയ്ത പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹാരി പോട്ടർ എടുക്കാം ഹാരി പോട്ടറിൻ്റെ ഫസ്റ്റ് ആഹ് ഫസ്റ്റ് ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട് അത് ഭയങ്കര അടിപൊളിയ നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമ്മളതിലേക്ക് ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്ന രീതിയിലുള്ള വിഷൻസും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് അതിൽ ഉളളത് പിന്നെ എന്താ നമുക്കത് വായിക്കുമ്പോൾത്തന്നെ അതിലുള്ളത് മാജിക്കും കാര്യങ്ങളുമാണ് അപ്പോൾ അങ്ങനത്തെക്കുറച്ച് എന്താ പറയുക ആഹ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കരായിട്ട് അട്രാക്ട് ചെയ്യും പിന്നെ അതിലത്തെ എഴുതിയ രീതിയായാലും വായനക്കാരെ പിടിച്ചു നിർത്തുന്ന രീതിയിലുള്ള ടൈപ്പാണ് ആ പുസ്തകം പറയുന്നത് പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായായവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റണ രീതിയിലുള്ള ഒരു ടൈപ്പ് ബുക്കാണ് ഹാരി പോട്ടറിൻ്റെ എന്ന് പറയണത് ഇതിൻ്റെ രണ്ട് മൂന്നോ ഭാഗങ്ങൾ കുറേ ഉണ്ട് ഞാനതിൻ്റെ ഫസ്റ്റ് ഭാഗം മാത്രമേ വായിച്ചിട്ടുള്ളൂ ഇത് വായിച്ചിരിക്കണേന്ന് ചോദിച്ചാ അതെ വായിച്ചിരിക്കേണ്ടതാണ് കാരണം ഇത് സിനിമ സിനിമയായിട്ടും സീരീസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് അവരതിൻ്റെ ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് അവരതൊക്കെ ഉണ്ടാക്കി ഇരിക്കണത് അതുകൊണ്ട് ഇത് വായിച്ചിരിക്കേണ്ടത് തന്നെയാണ് പിന്നെ ഒരു എല്ലാർക്കും ഒരേ ഏതു പ്രായക്കാർക്കും ഒരേ രീതിയിൽ ആസ്വദിക്കാൻ പറ്റണ രീതിയിലുള്ള ഒരു ബുക്കാണത് അതിൻ്റെ ഒറിജിനൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് എഴുതിയിരിക്കണത് ഇംഗ്ലീഷ് ഒന്നുകൂടി നന്നാവുകയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ബുക്ക് കിട്ടാത്തതുകൊണ്ടാണത് വായിക്കാത്തത് എന്നാലും മലയാളം ആയാലും കുഴപ്പമില്ല നമുക്ക് വിഷൻസ് തരാൻ അത് ഭയങ്കര ഹെൽപ്പ് ചെയ്യും അത് എഴുതണ ആൾക്കാരടെ ട്രാൻസ്ലേറ്റ് ചെയ്ത ആളുടെ ഒരു കഴിവ് എന്ന് വേണമെങ്കിൽ പറയാം ഇത് വായിക്കണ സമയത്ത് നമുക്ക് വിഷൻസ് ഉണ്ടാകും എന്താണ് അവിടെ നടക്കുന്നത് അത് നമ്മൾ അതിലേക്കിങ്ങനെ എറങ്ങിച്ചെല്ലുന്ന രീതിയിലുള്ളൊരു ടൈപ്പാണ് എന്തായാലും ഒരു അടിപൊളി ബുക്കാണ് പിന്നെ മലയാളത്തിൽ വായിച്ചിരിക്കണത് ഞാൻ കൂടുതലായിട്ടും നോവലുകളിലാണ് ഫോക്കസ് ചെയ്യാറ് അങ്ങനെയൊന്നുമില്ല എല്ലാ ബുക്കും നന്നായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് എംടിയുടെ ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട കുറേ കഥകളും ഉണ്ട് അങ്ങനൊയൊക്കെ തന്നെ